ഇപ്പോൾ നമുക്ക് ടാപ്പ് വെള്ളം ലഭിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ ജലനിധിപോലെയുള്ള പദ്ധതികളൊക്കെ വന്നതോട് കൂടിയാണ് നമുക്ക് ടാപ്പ് വെള്ളം ഒക്കെ ലഭിക്കാൻ തുടങ്ങിയത് നമ്മൾ സാധാരണ കൊഴൽക്കിണർ ഉപയോഗിച്ചിട്ടാണ് വെള്ളം വീട്ടിലേക്കൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ ടാപ്പിൽ വെള്ളം വരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജലനിധിപോലെയുള്ള പദ്ധതികളിലൂടെ വരുന്ന വെള്ളമാണ് അപ്പോൾ അത് ശുദ്ധമായിട്ടുള്ള ഒരു വെള്ളമാണോയെന്ന് ചോദിച്ച് കഴിഞചഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ബ്ലീച്ചിങ്ങ് പൗഡറൊക്കെ ഇട്ട് വരുന്ന വെള്ളമാണ് അതിൽ വരുന്നത് അപ്പം നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു വെള്ള നിറത്തിൽ ഉള്ള വെള്ളമാണ് കൂടുതലായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് കുടിക്കാനൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് അത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തുണി അലക്കുന്നതിനും പിന്നെ ചെടിക്കും അങ്ങനെയുള്ള പശുവിനെ കുളിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ടാപ്പ് വെള്ളം യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ വീട്ടിൽ ഇപ്പോൾ ചോറ് വെക്കാനോ കഞ്ഞിക്കായാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഈ ടാപ്പ് വെള്ളം ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത്കൊണ്ട് ലഭിക്കുന്ന വെള്ളം ശുദ്ധമാണോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ശുദ്ധിയെപ്പറ്റിയൊന്നും അങ്ങനെ നല്ലൊരു അഭിപ്രായം പറയാൻ ഇതുവരെ തോന്നിയിട്ടില്ല എന്തായാലും ടാപ്പ് വെള്ളം ഉള്ളത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്